നാളത്തേക്കൊരു ജേർണി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഓക്കേ നാളേ മോണിംഗ് ഒമ്പത് മണിക്ക് ബത്തേരിയിൽ നിന്ന് വൈത്തിരി വരെയാണ് വൈത്തിരിയിലാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് ഓക്കേ ഞങ്ങൾ നാലു പേരുണ്ടാവും

നാലുപേരും ബത്തേരിയിൽ നിന്ന് തന്നെയാണ് കയറുന്നത് ഓക്കേ ആ ബത്തേരിയിൽ നിന്ന് വൈത്തിരി കൊണ്ടുപോയി ഈറക്കിയിട്ട് നിങ്ങൾക്ക് പോകാം

ടോട്ടൽ കോസ്റ്റ് എത്ര വരുമെന്ന് അതൊന്നു പറഞ്ഞു തരാൻ പറ്റുമോ ഓക്കേ വൺ സൈഡ് ആണെകിൽ ഈ എമൗണ്ട് വരും വൈന്നേരം വന്ന് തിരിച്ച് പിക്കപ്പ് ചെയ്യണം എന്നതിന് എക്സ്ട്രാ എത്ര വരും

ഓക്കേ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ഈവെനിംഗ് ഒരു അഞ്ചുമണിക്ക് വന്ന് തിരിച്ചു ഞങ്ങളെ പിക്കപ്പ് ചെയ്യാൽ തിരിച്ച് ബത്തേരിയിൽത്തന്നെ കൊണ്ടുപോയി വിടുക ഓക്കേ ഓക്കേ ഓക്കേ